പാചകം ചെയ്യാൻ വളരെ ഇഷ്ട്ടമുള്ളൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ യുട്യൂബിൽ നോക്കി ചെയ്യാറുണ്ട് കൂ വീട്ടിൽ നിന്ന് കൂടുതൽ സമയവും പാചകം അടുക്കളയിൽ തന്നെയാണ് നമ്മുടെ ജീവിതം പിന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി നോക്കാറുണ്ട് ഈ ഇടയ്ക്ക് പിന്നെ അവിൽ വെച്ചിട്ടുള്ളൊരു പാചകം ചെയ്തായിരുന്നു അലുവ പോലെയുള്ള ഒരു സാധനം അതിന് എണ്ണയും നെയ്യും ഒന്നും ആവശ്യമില്ലായിരുന്നു ഹലുവ ആ അവിൽ വറുത്തു പൊടിച്ചെടുത്തിട്ട് ശർക്കരപ്പാനി കാച്ചി തേങ്ങാപ്പാലും എടുത്തിട്ട് തേങ്ങാപ്പാലും അവിലും പൊടിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ശർക്കരപ്പാനിയിൽ ചേർത്ത് നമ്മൾ ഇളക്കി ഇളക്കി ഇളക്കി അവസാനം നല്ല കുറുകിവരുന്ന പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു പാനിലേയ്ക്ക് ഒഴിച്ചു റൂം ടെമ്പറേച്ചറിൽ വെ ടെമ്പറേച്ചറിൽ വെച്ചേക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോഴത് ഹലുവ പോലെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് അത് എല്ലാർക്കും ഒരുപാട് ഇഷ്ടമായി അതുപോലെ എത്ര സമയം എടുത്തുണ്ടാക്കാം എന്നറിയാതെ ചെയ്ത ഒരു കാര്യമാണ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയത് ബിരിയാണി കുക്കറിലാണെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാമായിരുന്നു പിന്നെ ഈ വെള്ളം വെച്ച് വെള്ളത്തിൽ അരിയിട്ട് വേവിച്ച് ഊറ്റിയെടുക്കുന്നത് എത്ര സമയമെടുക്കുമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം അങ്ങനെ വെയ്ക്കാൻ നോക്കി അപ്പോഴേ വെച്ചപ്പോഴേ ഒരുപാട് സമയം എടുത്തു അത് ആക്കി വരാനായിട്ട് അരി അരി കുതിർത്ത് വെച്ചില്ലായിരുന്നു കുതിർത്ത് വെക്കാതെയാണ് പാചകം ചെയ്യാൻ തുടങ്ങിയത് അവസാനം അത് വെന്ത് വരാൻ തോനെ സമയമെടുത്തു കുറച്ച് അടിയിലൊക്കെ പിടിച്ചു പോയി അത് കറക്റ്റ് അറിയാതെയാണ് അത് ചെയ്യാൻ ശ്രമിച്ചത് അത് റെസ്പോണ്ട് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ കുറച്ച് അടിയിലൊക്കെ പിടിച്ചു എന്നാലും വലിയ കുറ്റം പറയാൻ പറ്റിയ ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ മനസ്സിലായി ഇത് ഉണ്ടാക്കാൻ ഇത്രയും സമയെടുക്കുമെന്ന് പിന്നെ രണ്ടാമത് അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാർക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ടു നെയ്ച്ചോർ പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു അത് ഒരു അനുഭവമായിരുന്നു